ഹലോ മേഡം അ ആ മേഡം ആ ഇത് കച്ചവടക്കാരിയല്ലേ മേഡം അമ്പത് കിലോ ബസ്മതി റൈസ് എത്രയാകും അയ്യോ മാം അത് കൂടുതലല്ലേ അതുതന്നെയാണ് അരിക്ക് ഞങ്ങളുടെ ഇവിടെ അമ്പതും പിന്നെ അതിലും വിലക്കുറവാണല്ലോ തൊട്ടടുത്തുള്ള കടയില് ഓക്കെ മാഡം വേറെയേതൊക്കെ അരികളുണ്ട് അതിനൊക്കെ എന്താണ് റെയ്റ്റ് ആ ഏകദേശം ഒന്ന് പറയാമോ ആ ഇവിടെ എത്തിക്കുമോ എൻ്റെ വീടിപ്പോള് പാലക്കാടാണ് അപ്പോള് അവിടെ എത്തിക്കുമോ ആ നമ്മള് ഉദ്ദേശിക്കുന്ന സമയത്തു ഇവിടെ എത്തുമോ ആ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിലോ സാമ്പിളിന്റെ വില കൊടുക്കണമോ ആ ഓക്കെ ആ അപ്പോള് കൊറിയർ സർവീസിൻ്റെ റെയ്റ്റും അങ്ങനെ വല്ലതുമുണ്ടോ

ഷിപ്പിങ്ങ് ചാർജ് എന്തായാലും വേണമായിരിക്കുമല്ലെ ആ ഓക്കെ ആ ഓക്കെ മേഡം ഞാന് വന്ന് നോക്കാം ആ ഓക്കെ മേഡം ഓക്കെ